ആ നടുവേദനയ്ക്ക് വേണ്ടിയിട്ട് സാധാരണ നമ്മുടെ നാട്ടിൻപ്രദേശത്ത് ചെയ്യുന്നത് തൈലം മേടിച്ച് പുരട്ടുക ചൂട് വെക്കുക വെള്ളം തിളപ്പിച്ച് തുണി മുക്കി ചൂട് വെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് പിന്നെ എന്തുവ നമ്മൾ കിഴി ഉണ്ടാക്കി അതായത് മരുന്നുകളെല്ലാം കൂടെ പച്ചമരുന്നുകളെല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് അതൊരു കിഴി പോലെയാക്കിയിട്ട് നമ്മളൊരു ചെറിയ തവിയോ പാത്രമോ എടുത്ത് അതിനകത്തോട്ട് കുഴമ്പ് കുഴമ്പോ തൈലമോ ഒഴിച്ച് ചെറു ചൂടില് വെച്ചിട്ട് ഈ കിഴി അതിനകത്ത് മുക്കിയിട്ട് നമ്മുടെ വേദനയുള്ള ഭാഗത്ത് വെച്ച് നല്ലതായിട്ട് തിരുമ്മിയെടുക്കുക അത് നല്ലതായിട്ടും നടുവേദന ശമിക്കാനായിട്ട് ഉള്ളൊരു മാര്ഗ്ഗമാണ് പിന്നെ നമുക്ക് നടുവേദന മുട്ടുവേദനയൊക്കെ വരുന്നിടത്ത് എരുക്കിന്റെ ഇല അത് നല്ലതായിട്ട് അരച്ചിട്ട് അത് കുഴമ്പിനകത്ത് ആക്കിയിട്ട് ആ ഈ വേദനയുള്ള ഭാഗത്ത് നല്ലതായിട്ട് വട്ടത്തിൽ പൂത്തെരം പുരട്ടി കുറേ നേരം വെച്ചിരുന്നാൽ അതുകൊണ്ട് നമുക്ക് വളരെ ശമനമുണ്ടവും വേദന ശമനമുണ്ടാവും നടുവിന് വേദനയായാലും മുട്ടിന് വേദനയായാലും കാലിന് വേദനയായാലുവമൊക്കെ അങ്ങനെ വേദന ശമിപ്പിക്കും ആ അങ്ങനെ ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് നാട്ടിൻപ്രദേശത്ത് എല്ലാം ചെയ്യുന്നത് ആ പല തരത്തിലുള്ള തൈലങ്ങൾ ഉണ്ടാക്കും ഞാൻ സാധാരണ എനിക്ക് കാലിന് വേദനയൊക്കെ വരുമ്പോൾ കാഞ്ഞിരത്തിന്റെ ഇലയും എരുക്കിന്റെ ഇലയുംകൂടെ അരിഞ്ഞിട്ട് എണ്ണയ്ക്കകത്ത് ചൂടാക്കിയിട്ട് ആ എണ്ണ വെച്ചിരുന്നിട്ട് സാധാരണ തേക്കാറുണ്ട് പിന്നെ മുറിവെണ്ണ മേടിച്ച് നടുവിന് പുരട്ടാറുണ്ട് കാലിനും മുട്ടിനും കാലിനും ഒക്കെ വേദന ഉണ്ടാവുമ്പം അത് പുരട്ടാറുണ്ട് പിന്നേ ഇപ്പോൾ ഞാന് പുരട്ടുന്നത് പിണ്ണ തൈലമാണ് എനിക്ക് നടുവിന് ഡിസ്ക്കിന് ഇച്ചിരി പ്രശ്നം വന്നു അതിന് ഞാന് പോയി നമ്മുടെ ആയുര്വേദ ചികിത്സ പ്രകാരം പതിനാലു ദിവസത്തെ കിഴിയും ധാരയും എല്ലാം ചെയ്തു തിരുമ്മും എല്ലാം കഴിഞ്ഞു എനിക്കതുകൊണ്ട് വളരേ ആശ്വാസമു ണ്ട് ഇപ്പോൾ എനിക്ക് എഴുന്നേൽക്കാനും നടക്കാനുമൊക്കെ പറ്റുന്നുണ്ട് മറ്റേ എനിക്കൊട്ടും എഴുന്നേൽക്കത്ത് നടക്കത്തൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞാന് പോയി പതിനാല് ദിവസത്തെ കിഴി ധാര തിരുമ്മൽ ഇതെല്ലാം നടത്തി എല്ലാ ആയുര്വേദ ട്രീറ്റ്മെന്റിൻ പ്രകാരം അതിന് ശേഷം ഇപ്പം ഞാൻ പിണ്ണ തൈലമാണ് തൂക്കുന്നത് അത് തൂത്ത് ചൂട് വെക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വളരേയധികം വ്യത്യാസമുണ്ട് ഇപ്പം വേദനയൊന്നും ഒക്കെയില്ലാതെ ഞാന് എഴുന്നേറ്റ് നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൻപുറത്ത് ചെയ്തുവരുന്ന രീതികൾ